ഇപ്പോൾ നമ്മള് കൂടുതൽ ഈ ശൈത്യകാലത്ത് വളർത്തുന്ന ചെടികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബിന്ദി വളർത്താം ചെണ്ടുമല്ലി വളർത്താം പിന്നെ റോസാ ഡാലിയ ഇതൊക്കെ നമുക്ക് ഏത് കാലാവസ്ഥയിലും നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് നമുക്ക് അതിന് മെയിൻ ആയിട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് വെള്ളമാണ് മെയിൻ ആയിട്ട് വേണ്ടത് ഇപ്പോൾ ഏതുകാലത്തും നമ്മൾ എന്ത് ചെയ്യാ വെള്ളവും കാര്യങ്ങളൊക്കെ നമ്മള് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോയെന്നൊക്കെ നമ്മള് ശ്രദ്ധിക്കണം ഇപ്പോൾ മഴക്കാലത്ത് ആണെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ല നമുക്ക് വെള്ളവും കിട്ടുക കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ നമ്മള് നോക്കേണ്ട കാര്യമില്ല അപ്പോൾ അത് അതിൻ്റെ ചുവടും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കി കൊടുക്കുക വെള്ളം ഇറങ്ങാൻ പാകത്തിന് നമ്മള് അതിൻ്റെ ചുവട്ടില് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചു കൂടി നല്ലതാണ് ഇപ്പോൾ ഈ വേനൽ കാലങ്ങളിലൊക്കെ നമ്മള് കറക്റ്റ് ആയിട്ട് വെള്ളവും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഏതുകാലത്തും നമുക്ക് ചെടിയും കാര്യങ്ങളൊക്കെ നടാൻ പറ്റും ഇപ്പോൾ ചെടി എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് പരിപാലിക്കുന്നത് അതിനനുസരിച്ചാണ് ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുള്ളത് അപ്പോൾ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് പ്രത്യേകിച്ച് ഒരു ഒരു കാലഘട്ടത്തിൽ മാത്രം വളരുന്ന ഒന്നല്ല ഈ ചെടി എന്ന് പറഞ്ഞാൽ നമ്മള് നമ്മൾ എങ്ങനെയാണോ വെക്കുന്നത് അതിനനുസരിച്ച് ചെടി വളരും ഇപ്പോൾ നമ്മൾ ഒരു കൂടയില് അതായത് ഒരു കവറിൽ ഒക്കെ ആക്കി വയ്ക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടും നല്ലതായിരിക്കും അപ്പോൾ നമുക്കതിനനുസരിച്ച് വേണമെങ്കില് ഇപ്പോൾ വെയിലുള്ള സ്ഥലങ്ങളിലേക്കും ഇപ്പോൾ തണലത്താണെങ്കിലും നമുക്ക് മാറ്റിവയ്ക്കാനൊക്കെ ഭയങ്കര എളുപ്പമുള്ള ഒരു കാര്യമാണ്